വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും വിദ്യാഭ്യാസമെല്ലാം ഇഷ്ടം പോലെ നല്ലോണം കൊടുക്കുന്നുണ്ട് പക്ഷേങ്കില് ഞങ്ങളെ വയനാട്ടിലെന്ന് പറഞ്ഞാല് എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നല്ലാണ്ട് അവർക്ക് അവര് പഠിക്കുന്നതിനനുസരിച്ചുള്ള ജോലി ഇല്ല സർക്കാർ ജോലിയെല്ലാം അല്ലാത്തവർക്കാണ് കിട്ടുന്നത് പിന്നെ നല്ലോണം പഠിച്ചവർക്കൊന്നും ഇപ്പോൾ ഒരു ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് അല്ലാത്ത ജോലിക്ക് പോയാൽ ചെറിയ ശമ്പളം എന്തെങ്കിലും കിട്ടും അതിനെക്കൊണ്ടാണ് അവര് എങ്ങനെയൊക്കയോ കഴിഞ്ഞു കൂടുന്നത് പിന്നെ അതുകൊണ്ട് അവര് ഇപ്പം പഠിക്കുന്നത് എന്ന് പറഞ്ഞാല് ആൺകുട്ടികൾ പഠിക്കാനും മടിയന്മാരാണ് പെൺകുട്ടികളാണ് കൂടുതലും പഠിക്കുന്നത് പക്ഷെ നല്ലോണം പഠിച്ചവർക്കൊന്നും ഇവിടെ ജോലിയൊന്നും ഇല്ല വായനാട്ടി വയനാട്ടില് അങ്ങനെയാണ് നമ്മളെ ഇവിടെ നിന്ന് വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ജോലിയെല്ലാം കിട്ടും പക്ഷെ എല്ലാവരും അങ്ങനെ പോകുന്നില്ല ഇവിടെത്തന്നെ നിന്ന് എങ്ങനെയോ ചെറിയ ജോലികളൊക്കെ ചെയ്ത് എല്ലാവരും ജീവിച്ച് പോരുന്നു